ഓൺലൈൻ വിദ്യാഭ്യാസം കുട്ടികളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് മോശമായിട്ടും നല്ല രീതിയിലും സ്വാധീനിച്ചിട്ടുണ്ടായത് മോശമായിട്ട് സ്വാധീനിച്ചു എന്നത് കൂടുതലായിട്ടും പറയേണ്ട കാര്യമാണ് കാരണം പല രീതിയിലും കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ട് അതായത് ഫോൺ ഒരുപാട് ഉപയോഗിക്കുന്നത് കാരണം കുട്ടികൾക്ക് അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി കുറഞ്ഞു ഒരു കാര്യത്തിലെക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളവരുടെ ശേഷി കുറഞ്ഞു അവരുടെ കണ്ണ് ഒരുപാട് നേരം ഫോണിൻ്റെക്കെ സ്ക്രീനുകളിൽ നോക്കി ഇരുന്നിട്ട് അവർക്ക് കണ്ണുകൾക്കുള്ള പ്രശ്നങ്ങളുണ്ടാവുന്നു ഒരുപാട് നേരം ഇരുന്ന് ഇരുന്നുള്ള ക്ലാസു കേൾക്കൽ കാരണം അങ്ങനെ കുറെ നാളുകൾ ആകുമ്പോഴത്തേക്കും അവർക്ക് ഒബിസിറ്റി പൊണ്ണത്തടി അമിതവണ്ണം പോലുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നു അപ്പോൾ വ്യായാമങ്ങളില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു പിന്നെ അധ്യാപകർക്ക് ഇത്രയും കുട്ടികളെ ഒരുമിച്ച് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു ഇപ്പോൾ പല കുട്ടികളും ഓൺലൈൻ ക്ലാസിലിരിക്കുന്നുണ്ടെങ്കിലും അവർ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോന്നുള്ള അധ്യാപകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ട് ഇതിൻ്റെ ഗുണം എന്താണ് എന്ന് വെച്ചാൽ കൂടുതലായിട്ടും കൃത്യസമയത്ത് പല സ്കൂളുകളിലും കോളേജുകളിലും കൃത്യസമയത്ത് സിലബസ് തീരാനായിട്ട് ഇത് സഹായിക്കുന്നു എന്ന് വേണം കരുതാൻ അതായത് പല കാര്യങ്ങൾ കൊണ്ടും സ്കൂളുകൾ പ്രവർത്തിക്കാതെ വരിക ആരോഗ്യപരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ പരമായിട്ടുള്ള ലോക്ക് ഡൗൺ പോലുള്ള കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് പ്രോപ്പറായിട്ട് അവർക്ക് സിലബസ് തീർക്കാനും കുട്ടികൾക്ക് എല്ലാ ദിവസവും പഠനം മുന്നോട്ടു കൊണ്ടുപോവാനും സഹായിക്കുന്നുണ്ട് അതാണ് കൂടുതലായിട്ട് ഞാൻ കണ്ട ഒരു ഉപകാരം അല്ലെങ്കിലൊരു നല്ല കാര്യം എന്ന് പറയുന്നത് പിന്നെ പല കുട്ടികളും പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അവർക്ക് പല അവരുടെ ഫോണിൻ്റെ നെറ്റ് റീചാർജ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്കത് കാണാൻ പറ്റുള്ളു അപ്പോൾ അവർക്ക് പല സ്ഥലങ്ങളിലും അങ്ങനെ പറ്റായിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാവും ചിലർക്ക് ഫോണുണ്ടാകില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും ചിലർക്ക് ആ സ്ഥലത്ത് റേഞ്ച് ഉണ്ടാവില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ പേർക്കും ഉണ്ട്